കോഴി വളർത്തൽ കോഴികളെ വളർത്തുന്നു നമ്മൾ അതിനെ അതിൻ്റെ പരിചരണം ചെയ്ത് കോഴികളെ നമ്മൾ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് നമ്മൾ അതിൻ്റെ കറക്റ്റ് വാക്സിനേഷൻ കൊടുക്കണം അതുങ്ങൾ തൊണ്ണൂറ് ദിവസവൊക്കെ ആകുമ്പോൾ അതിങ്ങൾക്ക് ഒരിഞ്ചക്ഷൻ ചെയ്ത് നമ്മളിപ്പോൾ വിക്കുവാണെങ്കിൽ അതിനെ നമുക്ക് പുറത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻജക്ഷൻ അതിന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അതിൻ്റെ വാക്സിനേഷനൊക്കെ കൊടുത്തിട്ടാണ് അതിനെ നമ്മൾ വിൽക്കുന്നത് അതിന് അതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ട് അതുങ്ങൾക്ക് ആ സമയങ്ങളിൽ നമ്മളത് കൊടുക്കണം അത് കുറച്ച് ഇങ്ങോട്ട് വളർന്ന് ആയിക്കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ തോ പോളകളും വാഴ തണ്ടുകളും കപ്ലങ്ങ തണ്ടുകളും എല്ലാം വെട്ടിയിട്ട് അതിന് കൊടുക്കുമ്പോൾ അത് ആരോഗ്യത്തോടെ അത് വരും പിന്നെ നമ്മുടെ പൊടി നമ്മുടെ നാട്ടിലുള്ള പൊടിയരികളും ഗോതമ്പിൻ്റെ പൊടിയരികളും എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല ഹെൽത്തിയായിട്ട് വരും ആ പിന്നെ കോഴിത്തീറ്റയുണ്ട് അത് പെല്ലറ്റ് അതെല്ലാം വാങ്ങിച്ച് അതിങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ആരോഗ്യം നല്ല നല്ല നല്ല ഹെൽത്തിയായിട്ട് ഉള്ള കോഴികളെ നമ്മൾക്ക് കിട്ടും അത് നമ്മൾ അത് നമുക്ക് എപ്പോഴും വീട്ടിലെയൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാം പുറത്ത് കൊടുക്കാനാണെങ്കിലും നമുക്ക് പുറത്ത് കൊടുക്കാം മനുഷ്യനെ ബാധിച്ചേക്കാവുന്ന രോഗങ്ങളിൽ നിന്നും മുക്തമാക്കുന്നതും ആ ഇങ്ങനെ ഇത് ഒക്കെ കൊടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ നല്ലതായിട്ട് എടുക്കുന്നത് അതിന് ഇതിനെയൊക്കെ കോഴികളുടെ ഹെൽത്തിലെ മൃഗാശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് തുള്ളിമരുന്നുകളും അതിനുള്ള വാക്സിനും വേ കൃമികൾക്കുള്ള മരുന്നുകളും വാങ്ങിച്ചുകൊണ്ട് അതിന് കൊടുക്കും മനുഷ്യരെ പോലെത്തന്നെ അതിനേയും നമ്മൾ അതാത് സമയങ്ങളിൽ നമ്മൾ നോക്കി അതിനെ പരിപാലിക്കണം കൃത്യനിഷ്ഠയോടെ ആണ് അതിനെ നോക്കുന്നതും എല്ലാം പിന്നെ അതിൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു കോഴി കാഷ്ടങ്ങളൊക്കെ വന്നാലും അതിൻ്റെ സ്മെല്ല് മാറാനായിട്ട് നമ്മൾ തവിടൊക്കെ ഇട്ടുകൊടുക്കും തവിടുകൾ ഇട്ട് കൊടുക്കുമ്പം പുറത്തോട്ടതിന് വലിയ മണമൊന്നും പുറത്തോട്ട് വരുകേല അങ്ങനെ ഏറ്റവും നല്ല വ്യക്തമായിട്ട് തന്നെ അത് ചെയ്യൂ